ആ നമ്മുടെ വീട് മുറ്റത്തും പൂന്തോട്ടത്തിലൊക്കെ നോക്കുകയാണെങ്കില് ഒരുപാട് പക്ഷികളും മറ്റും കാര്യ വണ്ടുകളും മറ്റ് പ്രാണികളൊക്കെ വരാറുണ്ട് അപ്പോൾ അവയൊക്കെ വരാനുള്ള കാരണമെന്ന് പറയുമ്പോൾ ആ പൂക്കളില് ഇപ്പോൾ വണ്ടുകള് വരാൻ കാരണമെന്ന് പറയുമ്പോൾ പൂക്കൾ വിരിഞ്ഞ് നിൽക്കണ സമയത്ത് തേൻ കുടിക്കാന് വണ്ടുകള് വരാറുണ്ട് പക്ഷികളായിക്കോട്ടെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ജനാലകളൊക്കെ കുത്തി കുത്തി ഉള്ള ചില പക്ഷികൾ മരം കൊത്തികാളൊക്കെ അങ്ങനെ വന്ന് നിൽക്കാറുണ്ട് അതുപോലെ തന്നെ ചില പക്ഷികള് കൂട് കൂട്ടാനായിട്ട് വരാറുണ്ട് അപ്പോൾ ഓരോ കമ്പുകളും എടുത്തുകൊണ്ട് വന്നിട്ട് കൂട് കൂട്ടാനുള്ള പരിശ്രമം നടത്താറുണ്ട് ചില സമയത്തൊക്കെ ചില സമയത്ത് വീട്ടില് അച്ഛനുണ്ടെങ്കിൽ അതിനെ തല്ലി ആട്ടിപ്പായിക്കാറുണ്ട് പിന്നെ ചില സമയങ്ങളില് നമ്മള് വീട്ടില് പിറകുവശത്ത് നമ്മള് ബക്കറ്റുകളും മറ്റും പാത്രങ്ങളിൽ വെള്ളമൊക്കെ ഉണ്ടാകണ സമയത്ത് പക്ഷികള് വന്ന് വെള്ളം കുടിക്കാറുണ്ട് ആ പിന്നെ പക്ഷികൾക്കായിട്ട് ധാന്യങ്ങളും മറ്റും വെള്ളമൊക്കെ വെക്കാറൊക്കെയുണ്ട് അപ്പോൾ ചില പക്ഷി വന്ന് സ്ഥിരമായിട്ട് വന്ന് കുടിക്കാറൊക്കെയുണ്ട്